മലയാള ഭാഷയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളും പ്രയോഗങ്ങളും എന്താണ് എന്ന് എന്തുകൊണ്ട് മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാളായതിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടോ എന്തുകൊണ്ട് എൻ്റെ മാതൃഭാഷ മലയാളമാണ് ഞാനൊരു മലയാളിയായി ജനിച്ചത് കൊണ്ടും ഞാൻ മലയാളത്തിൽ ജീവിക്കുന്നത് കൊണ്ടും എനിക്ക് മലയാള ഭാഷ മലയാള ഭാഷ വളരെ ഇഷ്ടമാണ് മലയാളത്തിൽ സംസാരിക്കുക എന്നുള്ളത് നമ്മൾ മറ്റേ ഇംഗ്ലീഷൊക്കെ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ ഇത്രയേറെ അക്ഷരങ്ങൾ എന്തോരം അക്ഷരങ്ങൾ നമ്മളതെല്ലാം പഠിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അതില് വളരെ അഭിമാനമുണ്ട് മലയാ ളം പഠിക്കുക എന്ന് പറയുന്നത് മറ്റ് ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് എങ്കിലും നമുക്ക് മലയാളം വളരെ ഈസിയായി സംസാരിക്കാനും എഴുതുവാനും സാധിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് മലയാളത്തിലെ ധാരാളം എഴുത്തുകാർ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ പ്രസിദ്ധമായ കവികൾ മത മഹാഭാരതവും മഹാഭാരതോക്കെ എഴുതിയവരുടെ ലിപികളും എല്ലാം നല്ല വളരെ ശക്തമായ ഒരു മലയാളത്തിൻ്റെ എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്ന എല്ലാം വളരെ നല്ല രീതിയിൽ മലയാളം ഉപയോഗിക്കുന്നുണ്ട് ഒരാളാണ് അതുകൊണ്ട് മലയാളത്തെ ഞാൻ കൂടുതല് സ്നേഹിക്കുന്നു